ഇംഗ്ലീഷ് അറിയാത്ത ഒരാൾ ഒരു പ്രായമായ ആൾ ബാങ്കിൽ പോവുകയാണെങ്കിൽ അവിടെ ഫോം ഫിൽ ചെയ്യാനാണെങ്കിൽ അത് ഇംഗ്ലീഷിൽ ഫോം എങ്കിൽ അയാൾക്ക് ബുദ്ധിമുട്ടായിരിക്കും മലയാളം മലയാളം പഠിച്ചു വളർന്ന ഒരാൾക്ക് ഇംഗ്ലീഷ് വായിച്ച് എഴുതാനും പ്രായമുള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെയുള്ള സമയങ്ങളിൽ അയാളെ കൂടെ നിന്ന് സഹായിക്കാനും ആരുമില്ല വേറെ ആൾക്കാരുടെ സഹായം അവിടെയുള്ള ബാങ്കിൽ ഉള്ള വേറെ ആൾക്കാരുടെ സഹായം അവർക്ക് തേടേണ്ടി വരും ഇംഗ്ലീഷ് ഇംഗ്ലീഷിൽ അവർക്ക് നോളജ് ഇല്ലാത്തതിനാൽ എപ്പോഴും അവരെ സഹായിക്കാൻ ആരും കാണത്തില്ല ഇപ്പം നമ്മുടെ വീടിൻ്റെ എന്തെങ്കിലും ഡോക്യുമെൻസിൻ്റെ അകത്തും ഇതേപോലെ ഇംഗ്ലീഷ് ഫോമുകൾ വരുകയാണെങ്കിൽ സ്വന്തം മക്കൾ വരെ അവർക്ക് അവരെ പറ്റിച്ച് അവരെ അനാഥരാക്കാൻ ശ്രമിക്കുന്ന കാലഘട്ടമാണ് ഇംഗ്ലീഷ് അറിയാത്തതിനാലാണ് ഇങ്ങനെ അവർ അവർ പഠിച്ചുവന്നത് മലയാളമാണ് കേരളത്തിൻ്റെ ഒരു ഭാഷയാണ് മലയാളം അതിനാൽ അവര് അവർക്കിങ്ങനെയുള്ള ഇംഗ്ലീഷ് ഫോമുകൾ ഒക്കെ ഫിൽ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാവുന്നു